നമ്മുടെ പാലക്കാട് ജില്ലയില് നോക്കാന്ന് പറഞ്ഞാല് ഭാഷയ്ക്ക് ഭയങ്കര ഒരു വെറൈറ്റി ആയിട്ടുള്ള സ്ഥലാണ് പാലക്കാടൻ ഭാഷ വെറൈറ്റി ആയിട്ടുള്ള സാധനമാണ് അതിൽ തന്നെ നോക്കണേന്ന് പറയുമ്പോൾ നമ്മളെ പാലക്കാട് ടൗൺ ഏരിയയില് നോക്കുമ്പോൾ ഒരു ഭാഷ ഭാഷയ്ക്ക് പ്രാധാന്യം അല്ല ഭാഷയുടെ വ്യത്യാസങ്ങളാണ് നമുക്ക് കൂടുതൽ കാരണം നമുക്ക് നമ്മുടെ നാട്ടിൽത്തെ ആൾക്കാര് തന്നെ പല രീതിയിലുള്ള സംസാരമാണ് പാലക്കാട് ടൗൺ ഏരിയ നോക്കുകാണെങ്കിൽ ഒരു ഭാഷാരീതി യായിരിക്കും കൊല്ലംകോട് നോക്കുകാണെങ്കിൽ ഒരു ഭാഷാരീതി ആയിരിക്കും മണ്ണാർക്കാട് നോക്കുകാണെങ്കിൽ ഒരു ഭാഷാരീതി അട്ടപ്പാടിയില് വേറെ ഒറ്റപ്പാലത്ത് വേറെ നമ്മുടെ ജില്ലയിൽ തന്നെ വിവിധ സ്ഥലങ്ങളില് വിവിധ രീതിയിലുള്ള സ്ലാങ്ങ് ആണ് വരുന്നത് അപ്പൊൾ അത് നമുക്ക് ഒരു വെറൈറ്റി ആയിട്ട് തന്നെ നമുക്ക് തോന്നാ ഫീൽ ചെയ്യാറുണ്ട് അത് എന്താണ് അങ്ങനെ എന്ന് ചോദിച്ച് കഴിഞ്ഞാൽ നമുക്ക് അതിനെ കൃത്യമായ ഒരു മറുപടി പറയാനില്ല പിന്നെ ആചാരങ്ങളും മതങ്ങളും ഒക്കെ നോക്കാന്ന് പറയുമ്പോൾ നമ്മുടെ പാലക്കാട് ജില്ലയില് ഏകദേശം എല്ലാ മതങ്ങളുടെയും പ്രാതിനിധ്യമുള്ള ഒരു ജില്ല തന്നെയാണ് ഇപ്പൊൾ ഹിന്ദുസായാലും ക്രിസ്ത്യൻസായാലും മുസ്ലിംസ് ആയാലും ഏകദേശം എല്ലാ മതങ്ങളുടെയും പ്രാതിനിധ്യമുള്ള ഒരു ഇതായതുകൊണ്ട് എല്ലാവരുടെയും ഉത്സവങ്ങൾ അല്ലെങ്കിൽ ആചാരങ്ങള് നമുക്ക് കണ്ട് അറിയാൻ പറ്റും ഇപ്പോൾ ഹിന്ദുക്കളുടെ ഉത്സവങ്ങളും കാര്യങ്ങളും ഇപ്പോൾ വിഷു അതുപോലെത്തെ ഓണം പിന്നെ ഗണേശോത്സവങ്ങള് പിന്നെ എന്താ പറയാ അമ്പലത്തിലെ ഇപ്പോൾ ശ്രീവേലി അല്ലെങ്കിൽ അമ്പലത്തിലെ ഉത്സവങ്ങളെ നോക്കാന്നു പറയുമ്പോൾ ചുറ്റുവിളക്ക് അങ്ങനത്തെ അടിസ്ഥാനപരമായ ഉത്സവങ്ങളും കാര്യങ്ങളും പിന്നെ പള്ളികൾ നോക്കുകയാണെങ്കിൽ നബിദിനം അങ്ങനത്തെ കാര്യങ്ങൾ അവരുടെ പിന്നെ ക്രിസ്തുമസ് ആ ഈസ്റ്റർ അങ്ങനത്തെ കാര്യങ്ങള് എല്ലാം നമുക്ക് പൊതുവേ എല്ലാ ജില്ലയിലും ജില്ലയിൽ നോക്കണെ എല്ലാവരുടെയും ഒരു ഭൂരിപക്ഷവും കാര്യങ്ങളൊക്കെയാണ് പിന്നെ നമ്മടെ ഹിന്ദു സമുദായത്തിൻ്റെ ഉള്ളില് നോക്കാണ്ന്ന് പറയുമ്പോൾ ഓരോ കൂത്ത് ഇപ്പോൾ അതായത് പാവക്കൂത്ത് തോൽപ്പാവക്കൂത്ത് കഥകളി രാത്രി നീണ്ടുനിൽക്കുന്ന കഥകളി അങ്ങനത്തെ കാര്യങ്ങള് പിന്നെ നമ്മുടെ മുണ്ടൂര് ഭാഗത്ത് നോക്കുക എന്ന് പറയുമ്പോൾ മുണ്ടൂര് വേല കുമ്മാട്ടി അതുപോലെ ഓരോ നമ്മുടെ ജില്ലയില് എന്താ പറയുക ഇഷ്ടംപോലെ ആചാരങ്ങളായിട്ട് ബന്ധപ്പെട്ട് പഴയ അതായത് ഗ്രാമീണ ഗ്രാമ ജില്ലാന്ന് വേണമെങ്കി പറയാൻ പറ്റും അപ്പോൾ അതിൻറ്റേതായ കുറേ മേന്മകൾ നമുക്ക് നമ്മുടെ പാലക്കാട് ജില്ലയില് കാലാ കാണാൻ പറ്റുന്നുണ്ട്